ഏറെ വിശാലമായ ജലാശയങ്ങളിൽ നീന്തുമ്പോൾ ഏറെ കരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ് സാധാരണ നീന്തലെന്ന് പറയുമ്പോൾ കെട്ടിക്കിടന്നേക്കുന്ന സ്വിമ്മിങ് പൂൾ പോലെയുള്ള പൂള്കളിലാണ് നീന്തുന്നതും നീന്തൽ പഠിക്കുന്നതും എന്നാൽ വലിയ ജലാശയങ്ങളിലും കടലിലും നദികളിലും സുരക്ഷിതരായി നീന്തുന്നവർ നിരവധിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദീർഘദൂരം നീന്തൽ നടത്തുമ്പോൾ സുരക്ഷിതരായിരിക്കുവാൻ ചെയ്യേണ്ട പ്രധാന ഒരുക്കങ്ങളിവ ഒക്കെയാണ്

വളരെ കംഫെർട്ടബിളായിട്ടുള്ള സ്വിമ്മിങ് സ്യുട്ടായിരിക്കണം ധരിക്കേണ്ടത് ചെറിയ അളവിൽ കുടിവെള്ളം കരുതുന്നത് നന്നാണ് ശരീരത്തിലെവിടെയെങ്കിലും കുടിവെള്ളത്തിൻ്റെ കണ്ടെയ്നർ ഉടക്കിയിട്ത് ഇട്ടായിരിക്കണം നീന്താൻ തുടങ്ങേണ്ടത് അമിതമായി വയറ് എംറ്റിയായി നീന്തുന്നതാണ് ഏറ്റവും ഉചിതം ദീർഘ ദൂര നീന്തൽ നടത്തുമ്പോൾ ക്ഷീണം അനുഭവിക്കുന്ന അവസരങ്ങളിൽ ബേ സ്ട്രോക്കായിട്ട് നീന്തുന്ന രീതിയിന്ന് വളരെ വ്യാപകമായി കാണാറുണ്ട് അത്പോലെ വഴുവഴുപ്പുള്ള പാറകൾ വലിയ ജലാശയങ്ങൾ പാല് പായൽ ശക്തമായ ഒഴുക്ക് പോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും സാധാരണ സ്വിമ്മിങ് പൂള്കളിലോ അല്ലെങ്കിൽ പൂള്കളിലോ ചെറിയ നദികളിലോ ഒക്കെ പരിചയപ്പെട്ട രീതി അനുവർത്തിക്കുക വഴി അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് പായൽ ശക്തമായ ഒഴുക്ക് വഴ് വഴ്പ്പുള്ള പാറകളൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ പരിശീലനമുള്ളവർക്ക് മാത്രം മുന്നിട്ട് എറങ്ങാൻ പറ്റിയ മേഖലകളാണ് ഈ തരത്തിലുള്ള നീന്തലുകൾ ഈ തരത്തിലുള്ള നീന്തലുകൾക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രോപ്പറായിട്ടുള്ള ലൈഫ് ഗാഡ്കൾടെ സപ്പോട്ടോടുകൂടി വൈദഗ്ധ്യം നേടിയ ഒരു നീന്തൽ താരമാണെന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന് മുതിരാവൂ